ഹലോ ഞാൻ പാൻ കാഡ് സ്പോട്ട് ടീമുമായി ടീമാണൊ ഞാൻ വിളിച്ചത് എന്റെ പാൻ കാർഡ് അപേക്ഷ ഞാൻ നൽകീട്ട് ഏകദേശം ഒരു ഒരാഴ്ച്ചേക്കൂടുതലായി ഇതുവരെ എന്റെ പാൻ കാഡ് വരിക വ വരികയോ അതിനെക്കുറിച്ച് അത് ഇഷ്യൂ ചെയ്തെന്ന് മെസ്സേജ് വരികയോ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എനിക്ക് പാൻ കാഡിന്റെ ഒരത്യാവശ്യമുണ്ടായിരുന്നു കാരണം ഒരു വസ്തു വിൽക്കാൻ വേണ്ടി ആയിരുന്നു വിൽക്കുമ്പത്തെ വിൽക്കുമ്പം അതിൽ ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടി പാൻ കാഡ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനാണ് എത്രയും പെട്ടന്ന് എന്റെ രെസീത് നമ്പരായ ആറ് ഏഴ് ഒൻപത് പത്ത് പതിനഞ്ച് എന്ന നമ്പർ നമ്പറും എന്റെ ജനനത്തിയതി ആയിരത്തിത്തൊള്ളായിരത്തി നെ എൺപത്തി രണ്ട് നാല് പതിമൂന്ന് എന്ന് പതിമൂന്നാണ് ആയാൽ ഒന്ന് പരിശോധിച്ച് എത്രയും പെട്ടന്ന് വേണ്ട നടപടി എടുക്കണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോടപേക്ഷിക്കുന്നു